ഇന്ത്യയുടെ ഫാഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് അത്ര ഒരുമാതിരി മാന്യതയുള്ള ഒരു ഡ്രസ്സാണ് വരുന്നത് പിന്നെ ഫാഷനെക്കുറിച്ച് പറയുമ്പോൾ ഫാഷൻ വസ്ത്രങ്ങളെന്തിറങ്ങിയാലും അത് ആദ്യമേ സ്ത്രീകളാണത് അനുകരിക്കുന്നത് പുരുഷന്മാരെപ്പോഴും സാധാരണ ഒരു ഡ്രസ്സിലായിരിക്കും പഴയ വസ്ത്രരീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ വസ്ത്രരീതി ഒത്തിരി മാറ്റമാണുള്ളത് കാരണം പുരുഷന്മാരുടെ വസ്ത്രരീതീലധികം മാറ്റമില്ലെങ്കിലും സ്ത്രീകളുടെ വസ്ത്രരീതിയിൽ കുട്ടികളും എല്ലാവരുടെയും രീതിയിൽ ഇപ്പം നല്ലൊരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ പാശ്ചാത്യ വസ്ത്രരീതികളും ഇന്ത്യൻ വസ്ത്രരീതികൾ രീതികളെയും സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നാടോടുമ്പോൾ നടുവെ എന്ന് പറയുന്ന കണക്ക് ഏതെങ്കിലുമൊരു സിനിമയിലൊക്ക എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലും വരും പിന്നെ അത് ആ ഫാഷനിൽ ഡ്രസ്സിറങ്ങും പിന്നെ അത് ഒരാളിട്ട് അപ്പോൾ അടുത്തയാൾ മേടിച്ചിട്ട് അങ്ങനെയാണ് ഈ വസ്ത്ര രീതികളുടെ ഒരു കാര്യം അതിനകത്ത് ആരും നാണവും മാനവുമൊന്നും നോക്കാറില്ല പിന്നെ എന്ത് കോമഡി വസ്ത്രം വേണമെങ്കിലും ഇപ്പോഴത്ത പെണ്ണുങ്ങൾ ധരിക്കാനായിട്ട് തയ്യാറുമാണ് അപ്പം വസ്ത്രരീതി ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കണമെന്ന് ചോദിച്ചാൽ ചിലർ ഇറങ്ങുന്ന ഇറങ്ങുന്ന ഫാഷനനുസരിച്ച് ആയിരിക്കും ചിലവർ എന്ത് ഫാഷൻ ഇറങ്ങിയാലും അവർക്ക് അവരുടേതായ ഒരു വസ്ത്ര രീതിയുണ്ട് അതേ അവർ ചെയ്യത്തുള്ളു അങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ മാറി മാറി വരുന്ന ആ ഒരു മോഡലനുസരിച്ച് അവരുടെ ആ ഇത് മാറും പക്ഷേ വലിയവർ അങ്ങനെ മാറണമെന്നില്ല എന്നാലും മാറുന്നവരുമുണ്ട് എന്നാലും ഒരെൺപത് ശതമാനം പേരും മാന്യമായ വസ്ത്ര രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ അവ എവിടെ നിന്നാണ് വാങ്ങാറുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളുടെ നാട്ടും പുറത്തുള്ള കടകളിൽനിന്ന് വാങ്ങാറുണ്ട് പിന്നെ ആളുകൾ വേറെ ദൂരെ സ്ഥലങ്ങളിൽ പോയി അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽനിന്ന് ഡ്രസ്സൊക്കെ വാങ്ങാറുണ്ട് പിന്നെ കൂടുതലും വലിയ വലിയ ഷോപ്പുകളിൽ പോയാണ് ആളുകൾ ഡ്രസ്സ് വാങ്ങുന്നത് പിന്നെ അത്യാവശ്യമെന്ന് തോന്നുമ്പോൾ നാട്ടിൻപുറങ്ങളിലുമൊക്കെ കടകളിൽനിന്ന് വാങ്ങിക്കും